കലയെ കൂടുതലായും വളർത്തുവാൻ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങൾക്ക് വളരേയധികം സഹായിച്ചിട്ടുണ്ട് നേരത്തെ കലാകാരന്മാർക്ക് ഒരു വേദി ലഭിക്കണമായിരുന്നു അവരുടെ കല പുറത്തു കൊണ്ടു വരണമെങ്കിലും സമൂഹവുമായി പങ്കു വെക്കണമെങ്കിലും ആൾക്കാരത് ഏറ്റെടുക്കണമെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിരന്നു നിൽക്കുകയാണ് നമുക്ക് മുൻപിൽ അതിനായി ഓരോരോ റീൽസും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ പലവിധ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കലയെ പുറത്തു കൊണ്ടു വരുവാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുവാനും സാധിക്കും ഓൺലൈൻ പഠനം ഇതിൽ വളരെ നിർണ്ണായകമായ ഒരു ഘടകമാണ് കാരണം കൊറോണ എന്ന മഹാമാരി നമ്മുടെ സമൂഹത്തെ പിടിച്ച് ഉലച്ചപ്പോഴും ഓൺലൈൻ പഠനമാണ് കുട്ടികളുടെ പഠനത്തെ തടസ്സപ്പെടുത്താതെ മുന്നോട്ടു നയിക്കാൻ സഹായിച്ചത് ഏകദേശം ഒരു വർഷത്തോട് ഒരു വർഷത്തോളം കുട്ടികൾക്ക് ഓൺലൈനായി പഠനം ലഭിച്ചു അതിലൂടെ ഒരുപാട് ദോഷങ്ങളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട് ദോഷവശങ്ങൾ നോക്കിയാൽ വളരെ അധികം അറി അതിലേറെ ഗുണങ്ങളും നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട് നമ്മളാണ് നമ്മുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത് അത് ദുരുപയോഗം ചെയ്ത് നശിപ്പിക്കേണ്ടതല്ല നമ്മുടെ ഓരോ ഇതും നമ്മുടെ കലയെ പുറത്തു കൊണ്ടു വരുവാൻ സമൂഹ മാധ്യമം എന്നും നമ്മെ സഹായിക്കുന്നുണ്ട് സമൂഹ മാധ്യമം മാധ്യമങ്ങൾ എന്നത് നമ്മുടെ കലകളെ മാത്രം പുറത്തു കൊണ്ടു വരാനല്ല നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ലോക മെമ്പാടുമുള്ള ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കാൻ നമ്മെ സഹായിക്കുന്നു ആ സൗഹൃദങ്ങൾ നല്ലതും ചീത്തയുമായിരിക്കാം എങ്കിലും അതിനെ എന്താണ് നല്ലതെന്നു തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് പല പല പ്രലോഭനങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലും നമുക്കുണ്ടാകാം പക്ഷെ അതിനെയൊക്കെ നേരിടാനുള്ള കഴിവു നമ്മളിലുണ്ടാകണം നമ്മുടെ കലയെ വളർത്തി കൊണ്ടു വരിക എന്നതു നമ്മുടെ അവകാശമാണ് നമ്മളില്ലെല്ലാവരും ഒരു കലാകാരനും കലാകാരിയുമുണ്ട് അതിനെ വളർത്തി എടുക്കുക എന്നതും നമ്മുടെ ഓരോരുത്തരുടെയും അത്യാവശ്യമാണ് വീടുകളിലായി ഒതുങ്ങി പോകുന്ന പല മാതാപിതാക്കൾമാരും ഉണ്ട് തൻ്റെ മക്കൾക്കു വേണ്ടി ജീവിതം നൽകുന്നവർ പക്ഷെ അവർക്കായി വളരുവാനും അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടു വരുവാനും സമൂഹ മാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട് അമ്മമാർക്കു കുക്കിങ്ങെന്ന അവരുടെ കഴിവിനെ അവർ പുറത്തു കൊണ്ടു വരാൻ എന്തു കൊണ്ടും യൂട്യൂബ് എന്ന സമൂഹ മാധ്യമം സഹായിച്ചിട്ടുണ്ട് പാചകമെന്നതും ഒരു കല തന്നെയാണ് അതിനെ പുറത്തു കൊണ്ടു വരേണ്ടതും ആവശ്യമാണ് എല്ലാവർക്കും പലവിധ കലകളാണ് ദെ നൽകിയിരിക്കുന്നത് അതിനെ എല്ലാറ്റിനെയും ഏറ്റെടുക്കുക എന്നതും നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് ഏറ്റെടുത്ത് അത് മറ്റുള്ളവരിലേക്കെത്തിക്കുക അതിലൂടെ വളർന്നു വന്ന ഒരുപാടാളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്നും വളരേയധികം ആളുകളാണ് നമുക്ക് മുൻപിലേക്കെത്തുന്നത് ദിവസേന അവരുടെ ഓരോരുത്തരുടെയും കൂടുതലായി പുറത്തു വന്നു കൊണ്ടുമിരിക്കുന്നു